എൻ്റെ പ്രദേശത്തു കാണുന്ന പക്ഷികളൊക്കെയെന്ന് പറയുമ്പോൾ കാക്ക കുയിൽ മയിൽ അതുപോലെത്തന്നെ പ്രാവ് അതുപോലെത്തന്നെ മറ്റെ കിങ്ഫിഷർ പിന്നെ ഒരു വാലുള്ളൊരു വെള്ളപ്പക്ഷിയുണ്ട് അങ്ങനെ ഒരുപാട് വ്യത്യസ്തതരത്തിലുള്ള പക്ഷികള് വീട്ടിന്റെയവിടെ കാണാൻ സാധിക്കും അപ്പോൾ എനിക്ക് എല്ലാത്തരം പക്ഷികളെ നിരീക്ഷിക്കാനും ഇഷ്ടമാണ് കാരണം ഓരോ പക്ഷികളും ഓരോ രീതിയിലാണ് കാണാനും അതുപോലെ അവ അവ ഉണ്ടാക്കുന്ന ശബ്ദത്തിലും ഒരുപാട് വത്യാസം ഉണ്ട് അപ്പോൾ അത് നിരീക്ഷിക്കുക പക്ഷികളെ നിരീക്ഷിക്കുക എന്ന് പറയുമ്പോൾ നല്ല രസകരമായിട്ടുള്ള ഒരു അനുഭവം ഒരു അനുഭവം തന്നെയാണ് കാരണം രാവിലെ അതിരാവിലെ നോക്കുകയാണെങ്കിൽ ഒരുപാട് പക്ഷികൾ പല തരത്തിലുള്ള സൗണ്ടുകളും മറ്റ് കാര്യങ്ങളും നമുക്ക് കേൾക്കാൻ സാധിക്കും പണ്ടൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് രാവിലെ ഈ ഒരു പക്ഷികളുടെ മറ്റും ശബ്ദങ്ങളൊക്കെ കേട്ടിട്ടായിരിക്കും നമ്മള് എണീക്കുന്നത് തന്നെ ഞാനൊക്കെ അങ്ങനെയായിരുന്നു അപ്പോൾ അത് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കാരണം പുതിയ കാര്യങ്ങളിലേർപ്പെടുക അല്ലെങ്കിൽ അറിയാത്ത കാര്യങ്ങൾ അറിയാത്ത കാര്യങ്ങളിൽ കൂടുതൽ നമ്മൾ ശ്രദ്ധ കൊടുത്തു കൊടുക്കുക ആ അങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുകയെന്നുള്ളത് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ്